ഞങ്ങളുടെ പ്രദേശത്തെ കുട്ടികളൊക്കെ മത്സര പരീക്ഷകൾ എഴുതുന്നത് പിന്നെ ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് സെൻ്ററുകളിൽ പോയിട്ട് എക്സാം എഴുതുന്നവരുണ്ട് പിന്നെ നാഷണൽ ലെവൽ ദേശീയപരമായിട്ടുള്ള മത്സര പരീക്ഷകളൊക്കെയാണെങ്കിൽ മിക്കവും ഓൺലൈൻ ആയിട്ട് എഴുതുന്നവ ഉണ്ട് അതിനു പ്രധാനമായിട്ടും അവരെ ഹെല്പ് ചെയ്യുന്നത് പിന്നെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കഫെകൾ പിന്നെ അക്ഷയ കേന്ദ്രങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കുട്ടികൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്